ഹലോ ഇത് അമൃത മാം അല്ലേ ഞാൻ ബി ബി എ ഏവിയേഷനിലെ സ്റ്റുഡൻ്റ് കൺവീനിയർ ഏനുവെ അനന്ദിത

അപ്പോൾ

ആ ഇവിടെ എൻ്റെ കൂടുതൽ ക്ലാസ്സുകളിലും ഫാൻ ഇല്ലാത്തതുകൊണ്ട് ചൂട് ആയതുകൊണ്ട് ആർക്കും ഇരിക്കാൻ പറ്റുന്നില്ല കുറെയായി കംപ്ലയിൻ്റ് കൊടുത്തിട്ട് ആ നമ്മൾ എല്ലാവരും അയിമ്പത് രൂപ വച്ച് ഇട്ടിട്ട് ആയി കഴിഞ്ഞാലും എല്ലാ ക്ലാസ്സിലും ഫാൻ വയ്ക്കാനുള്ള പൈസ ആവുമല്ലോ എന്നാലും നിങ്ങളെ ഭാഗത്തുനിന്നും ഒരു പൈസേൻ്റെ സഹായം കൂടി വേണ്ടേ നമ്മൾ മാത്രം എടുത്താൽ പോരല്ലോ സ്റ്റാഫ് റൂമിലില്ലെ ഫാന് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്നാൽപ്പിന്നെ അത് കഴിച്ചിട്ട് നമ്മളെ ക്ലാസ്സിൽ വയ്ക്ക് നല്ല ഫാന് വാങ്ങാത്തതുകൊണ്ടല്ലേ ഈ പ്രശ്നം വരുന്നത് സെക്കൻ്റ് ഹാൻ്റെല്ലാം എടുക്കുന്നതുകൊണ്ടല്ലേ ഇത് എന്നാലും ഇതിപ്പോൾ അടുത്തല്ലേ ഈ ഫാന് വാങ്ങിയത് അപ്പോഴേക്കും പോയില്ലേ ആ ആ ഇല്ല പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്തു തരണം ആ ആ ഓക്കേ